ഞാന് പിന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ഇതാണ് വണ്ടി മേഖല വണ്ടി മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്രൈവ് ഡ്രൈവ് ചെയ്യാനിഷ്ടമാണ് പക്ഷേ എനിക്കത് പേടിയാണ് അങ്ങനെ ഞാനെനിക്ക് സ്വന്തമായിട്ടൊരു ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് എടുത്ത് വണ്ടി വാങ്ങി എനിക്കത് അഭിമാനമുള്ള കാര്യമാണ് കാരണം ഞാന് ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഓട്ടോ മേടിക്കുന്നത് സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം കാരണം എനിക്ക് ആ ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും ഓടിക്കുമ്പോൾ ഒരു രസംപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാനെനിക്ക് വാശിയേറിയൊരു പഠിച്ചെടുത്ത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു വണ്ടി മേടിച്ച് ഓട്ടോ ഓടിച്ച് പോയിട്ടുണ്ട് കുറച്ചനുഭവം എനിക്കെന്റെ ജീവിതത്തിൽ അഭിമാനിക്കാവുന്ന കുറെ ദിവസം ഇതുണ്ടായിരുന്നു ആ ഓട്ടോ മേടിച്ചതില്